പണ്ടുകാലങ്ങളിൽ ആൾക്കാർ അങ്ങട്ടും ഇങ്ങോട്ടും ഉള്ള സഹകരണങ്ങൾ വളരെ അധികമായിരുന്നു ഇന്ന് പക്ഷേ സാങ്കേതിക വിദ്യകൾ അങ്ങനെയല്ല സാങ്കേതികവിദ്യകളുടെ സഹായത്തോടുകൂടി ആൾക്കാർ ഫോൺ വഴി മൊബൈല് വഴി ഉള്ള സഹകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മറ്റുള്ള വീടുകളിലേക്കും ഒന്നും തന്നെ ആൾക്കാർ പോകുന്നില്ല വീഡിയോകൾ കാണുന്നു പാട്ടുകൾ കേൾക്കുന്നു പണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സഹകരണങ്ങൾ വളരെ അധികമായിരുന്നു അതുപോലെ മറ്റുള്ളവരെ നേരിൽ കണ്ട് സംസാരിക്കുന്നു മറ്റുള്ള വീടുകളിൽ പോവുന്നു അവരുമായിട്ടുള്ള ബന്ധം പുതുക്കുന്നു അതുപോലെത്തന്നെ കുടുംബമായിട്ട് ഫാമിലിയായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങാനായിട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പണ്ട് കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ കാലങ്ങളിൽ ആളുകളുടെ ഫോണിൻ്റെ ഉപയോഗം വളരെയധികം വർധിക്കുകയും അത് മൂലം പണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പ്രാവർത്തികമാകാതിരിക്കുന്നതും വളരെയധികം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതുപോലെത്തന്നെ കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഫോണിന് അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ മുന്നിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് സങ്കേതികവിദ്യകൾ കാരണം വിനോദങ്ങൾ വളരെയധികം മാറിയതായിട്ട് നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കും സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉപയോഗിച്ചു പോകുന്നവർ അതുപോലെത്തതന്നെ മറ്റുള്ളവർക്ക് ഒരു സഹായവും ചെയ്യുവാൻ ചെയ്യാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരെയാണ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് കൂട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഇല്ല അടുത്ത അടുത്ത് അടുത്ത വീടുകളിൽ താമസിക്കുന്നത് പോലും ആരാണെന്ന് വ്യക്തമായിട്ട് അറിയുവാനുള്ള ഒരു അവസ്ഥയും അല്ല ഇപ്പോൾ കാണുന്നത് അതുപോലെത്തന്നെ ഒരു വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ഒരു അവസ്ഥയാണ് മതിലുകളും അതുപോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ വീടുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളായാലും അടിമപ്പെട്ടുപോകുന്നു മറ്റുള്ളവരുമായിട്ട് ഒന്ന് സംസാരിക്കുവാനോ അല്ലെങ്കിലൊന്ന് കാണുവാനോ ഒന്ന് ചിരിക്കുവാനോ ഒന്ന് നടക്കുവാൻ കൂടി പോലും കുഞ്ഞുങ്ങൾക്ക് അറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുന്നിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെത്തന്നെ ഫോണിൻ്റെ ഉപയോഗം അതും അതിനേക്കാൽ ഏറെ കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫോണിൻ്റെ അമിതമായ ഉപയോഗം കാരണം കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അതുപോലെത്തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുമായിട്ട് പേരെൻസ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല കൂട്ടുകാരുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവരുടെ എപ്പോഴും അവരുടെ നല്ല സുഹൃത്തും അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നതും എല്ലാം അവരുടെ ഫോൺ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് തന്നെയാണ് ഇപ്പം എന്ത് വേണമെങ്കിലും വിഡിയോകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ കുഞ്ഞുങ്ങൾ സമയം കണ്ടെത്താ അത് ചെയ്യുവാനായിട്ട് സമയം കണ്ടെത്തുന്നു പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങൾക്കൊന്ന് കളിക്കുവാൻ പോലും സമയമില്ലാതെ അവർ അവർ മൊബൈലിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതുപോലെത്തന്നെ പണ്ട് ബസുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നവർ അല്ലെങ്കിൽ നടന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നവർ ആരെയും തന്നെ ഇപ്പോൾ പുറംലോകത്ത് നമുക്ക് കാണുവനായിട്ട് സാധിക്കുന്നില്ല സ്വന്തമായിട്ട് വാഹനങ്ങൾ വാങ്ങി അതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഓഫീസുകളിൽ ജോലിക്ക് പോകുന്നവർ രാവിലെ ഓഫീസിൽ പോകുന്നു തിരിച്ച് വീടിനുള്ളിലേക്ക് കയറുന്നു മറ്റുള്ളവരുമായിട്ടും അടുത്തുള്ള വീടുകളിൽ പോലും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉള്ളതുപോലും അറിയാതെ ജീവിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ കുഞ്ഞുങ്ങളായാൽ പോലും തനിയെ സ്കൂളുകളിൽ പോകുന്നു തിരിച്ച് വാഹനങ്ങളിൽ തന്നെ വീടുകളിൽ വരുന്നു ട്യൂഷന് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് മുന്നിലും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സർക്കിൾ ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മുതിർന്നവർ രാവിലെ ജോലിക്ക് പോകുന്നു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു വൈകിട്ട് തിരികെ വരുന്നു കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു സർക്കിള് പോലെ നടന്നുകൊണ്ടിരിക്കുക്കയാണ് അതുകൊണ്ട് തന്നെ പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവും മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ആർക്കും തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല